വയനാട് ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തൊഴിൽ അല്ലെങ്കിൽ ഉപജീവന മാർഗ്ഗം എന്നുപറയുന്നത് കൃഷിയാണ് കൃഷി ഇപ്പോൾ വളരെയേറെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായി വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം കൃഷി ചെയ്യാൻ ആൾക്കാരെ ലഭിക്കുന്നില്ല തൊഴിലാളികളെ ലഭിക്കുന്നില്ല മാത്രമല്ല അതിനുള്ള വളത്തിൻ്റെയും കീടനാശിനികളുടെയൊക്കെ വില വർധനവും വരുന്നുണ്ട് പിന്നെ അതും ഒക്കെ ക്ഷമിച്ചും നമ്മുടെ കർഷകര് കൃഷിചെയ്യാൻ തുടങ്ങുമ്പോഴാണ് കൃഷിക്ക് ദുരന്തങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് മൃഗങ്ങൾ മൃഗങ്ങളുടെ ശല്യം വരുന്നത് ആനയും പുലിയും പിന്നെ കുരങ്ങും പന്നിയും മയിലും മാനും ഒക്കെ കൃഷി നശിപ്പിക്കാനായിട്ട് എത്തുകയും ചെയ്യുന്ന്ണ്ട് അപ്പോൾ കൃഷി എന്നുള്ള ജീവിതമാർഗ്ഗം ആയിട്ട് കണക്കാക്കാൻ ഒരു ചെറുപ്പക്കാരും ശ്രമിക്കില്ല അ ഇത്രയും റിസ്ക്കുള്ളൊരു ജോലിയായിട്ടാണ് അവര് കാണുന്നത് അതുകൊണ്ട് തന്നെ കൃഷിയുള്ള ജോലി എന്നുപറയുന്നത് കൃഷിയൊരു ജോലിയാക്കി നടത്താൻ ഒരു ചെറുപ്പക്കാർക്കും ഇപ്പം താല്പര്യമില്ല അതുകൊണ്ടുതന്നെ എല്ലാവരും സർക്കാർ ജോലിക്കോ അല്ലെങ്കിൽ സ്വകാര്യ ജോലികളിലേക്കോ പോവാനാണ് ഇഷ്ടപ്പെടുന്നത് പിന്നെ ഇങ്ങനെ മണ്ണിലിറങ്ങി അധ്വാനിക്കാനൊന്നും ആർക്കും താൽപര്യം ഉണ്ടാവുന്നില്ല ഈ കൃഷി ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് അതിനുള്ള ലാഭം കിട്ടാതെ വരുമ്പോൾ കൃഷി ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല കൃഷി ചെയ്യാതിരിക്കുന്നയാണ് നല്ലത് എന്ന് തോന്നിപ്പോകും അതുകൊണ്ടുതന്നെ എല്ലാരും കൃഷിയൊക്കെ ഒഴിവാക്കി വ്യാവസായിക സേവനങ്ങളൊക്കെ സ്വയംതൊഴിലൊക്കെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയാണ്